ഞാൻ പഠിക്കാനായിട്ട് ഇവിടെ ന്യൂസിലാൻഡിൽ എനിക്ക് കിട്ടിയായിരുന്നു എനിക്കാ ആ അത് എനിക്ക് എല്ലാം ശരിയായിട്ടുണ്ടെ ഞാൻ പാസ്പോർട്ട് മാത്രമേ ഉള്ളു ശരിയാക്കാനുള്ളു ആ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയി ജോലി ചെയ്യാനൊക്കെ പറ്റുമല്ലൊ പഠിച്ചുകഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ ജോലി കിട്ടും വലിയ താമസമില്ലാതെ തന്നെ ജോലി കിട്ടും അതുകൊണ്ട് ഒരു ഒരു വർഷത്തെ പഠിത്തമേ ഉള്ളു അത് കഴിയുമ്പത്തേനും ജോലിക്ക് കയറാൻ പറ്റും പെട്ടെന്ന്

അതിന് പക്ഷേ ഒരു കുഴപ്പമുണ്ട് പാസ്പോർട്ട് റിന്യു ചെയ്യാറായിട്ടുണ്ട് പാസ്പോർട്ട് പെട്ടെന്ന് റിന്യു ചെയ്ത് കിട്ടണം അത് കുറച്ച് സമയമെടുക്കുമായിരിക്കുമല്ലേ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ കുറച്ച് സമയം എടുക്കുവായിരിക്കും പെട്ടെന്ന് ആക്കാനായിട്ട് എന്തേലും പറ്റുമോ എന്തേലും അറിയാൻ പറ്റുന്നത് ഉണ്ടോ അറിയാവുന്ന കാര്യങ്ങളെന്തേലും ഉണ്ടോ